പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ധാരാളം പാട്ട് കേൾക്കാറുണ്ട് പലപ്പോഴും ഞാൻ ഈ യാത്രാവേളയിലും റേഡിയോ എഫ് എം റേഡിയോയിൽ വരുന്ന പാട്ടുകൾ വളരെ ഇഷ്ടത്തോടെ കേൾക്കുകയും സന്തോഷത്തോടെ ആസ്വദിക്കുകയും ചെയ്യാറുള്ളതാണ് ഈ ഗായകർ പലരുണ്ട് നമ്മുടെ ഗായകൻ യേശുദാസ് ചിത്ര ഇവരുടെയെല്ലാം ഗാനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് അതേസമയം കലാഭവൻ മണിയുടെ പാട്ടുകളാണ് ഈ നാടൻ പാട്ടുകളിൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ഈ ഓണം അതുപോലെ വരുന്ന വിശേഷങ്ങൾ വരുന്ന അവസരങ്ങളിൽ നമ്മുടെ ലോക്കൽ ആയിട്ട് ചില ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം ഈ മണിയുടെ ഗാനങ്ങളാണ് ഇവിടെ നാടൻ പാട്ടായിട്ട് എപ്പോഴും പാടിക്കേൾക്കുന്നത് അതാണ് എന്നെയും ആകർഷിച്ചിട്ടുള്ള ഈ നാടൻ പാട്ടുകൾ അല്ലാതെ യുഗ്മ ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ധാരാളം യുഗ്മ ഗാനങ്ങൾ കേൾക്കാറുണ്ട് അതേപോലെ മനോഹരമായ സിനിമ ഗാനങ്ങളും ധാരാളം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്